കുട്ടിക്കാലത്തു നമ്മൾ ക്രിസ്മസിനും അതേപോലെ തന്നെ ഉള്ള ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ബേഡേ അമ്മമാരുടെ അപ്പച്ചന്മാരുടെ ബേ ഡേക്കൊക്കെ നമ്മൾ പണ്ട് കാർഡുണ്ടായിരുന്നില്ല കാർഡിന് പകരം നമ്മൾ കൈ കൊണ്ട് ഒരു എന്താ പറയുക ഒരു എ ഫോർ ഷീറ്റിൽ രണ്ടായിട്ട് മടക്കി കൈകൾ കൊണ്ട് തെച് വെച്ചിട്ട് ഇപ്പോൾ ബെ ഡേക്കാണെങ്കിൽ ഹാപ്പി ബേ ഡേ അമ്മ ഹാപ്പി ബേ ഡേ പപ്പ എന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു അന്ന് ഈ തരത്തിലുള്ള കാർഡുകളൊന്നും ഉണ്ടായില്ല ഒരു എ ഫോർ ഷീറ്റ് രണ്ടായിട്ട് മടക്കി അതിൽ സ്കെച്ച് വെച്ചു വരച്ചു ഒരു തെങ്ങും ഒരു കുട്ടിയും ഒരു അമ്മയും ഹഗ്ഗ് ചെയ്തു നിൽക്കുന്നൊരു ഫോട്ടോ ഒരു ഒക്കെ ഇട്ടിട്ട് ഹാപ്പി ബേ ഡേ അമ്മ എന്നു പറഞ്ഞ് അമ്മയ്ക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓരോ സെലിബ്രേഷൻ വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ എന്താ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സിനു കൊടുക്കാറുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഫുള്ള് എന്താ പറയുക ഗിഫ്റ്റുകളാണ് പക്ഷേ പണ്ടെന്നു വെച്ചാൽ ഇങ്ങനൊരു കാർഡ് ബോർഡിൻ്റെ പേപ്പറിലോ അങ്ങനെയൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വരച്ചിട്ട് സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് അതുപോലെത്തന്നെ അമ്മയ്ക്കും അപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കും ഫാദേഴ്സ് ഡേക്ക് ഫാദർ ന് ഹാപ്പി ഫാദേഴ്സ് ഡേ ഹാപ്പി ബേ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ടു തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കുറച്ചു മുത്തുകളൊക്കെ വെച്ചിട്ട് ക്രയോൺസൊക്കെ വെച്ചിട്ട് സിൽക്കൊക്കെ ഇട്ടിട്ട് നല്ല അതി മനോഹരമായ കാർഡുക നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു മെമ്മറീസായിരുന്നു ഇപ്പോഴത്തെ കുട്ട്യോൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക് പൈസ കൊടുത്ത് പൈസക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണതാണിഷ്ടം അത് വാങ്ങിക്കുന്ന ആളുകൾക്കായാലും അതാണിഷ്ടം പണ്ടു നമ്മൾ ഓരോ ചെയ്ത എന്താ കാർഡ് അല്ലെങ്കിലെന്താ ചിത്രം ഒക്കെ എല്ലാം നമ്മൾ നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലേ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങൾ അതിൽ കൂടുതലും ഉള്ളത് ഇതുപോലെ തന്നെ സ്കെച്ചുകൾ കൊണ്ടുള്ളും കളർ പെൻസിലുകൾ കൊണ്ടുള്ള ഡ്രോയിംഗിലാണ് അതി മനോഹരമായ മേഘങ്ങൾ സൂര്യൻ പുഴ കടൽ അങ്ങനെയൊക്കെ ആയിരിക്കും എത്ര വർണ്ണിച്ചാലും മതി വരാ മതി വരാത്തത്ര എന്താ പറയുക സൗന്ദര്യമാണ് അതിൽ എത്ര പൈസ കൊടുത്താലും അങ്ങനെത്തൊരു സംഭവം വാങ്ങിക്കാൻ നമുക്കു കിട്ടില്ല ഒരിക്കലും കിട്ടില്ല നമുക്ക് അത്രയും ഭംഗിയുള്ള സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല നമ്മൾ കൈ കൊണ്ട് കൊച്ചു കൊച്ചു ക കാര്യങ്ങളൊക്കെ ചെയ്യണതത്ര പെർഫെക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് പണ്ടത്തൊരു മെമ്മറിയാണ് അപ്പോൾ ഞങ്ങളുടെ കാലത്തായാലും എല്ലാവരും അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസിലാണ് കൂടുതലും സ്കൂളുകളിലായി കൊള്ളട്ടെ സ്കൂൾ ഫ്രണ്ട്സിനെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും അതി മനോഹരമായിട്ട് അവരവരുടെ കൈകൾ വെച്ച് അതിൽ വരക്കാൻ അറിയാവുന്ന കുട്ടികളുണ്ടാകും അറിയാത്ത കുട്ടികളും വരയ്ക്കും അതിൽ ഏറ്റവും നല്ല കുട്ടികളുണ്ടാകും ഏറ്റവും നല്ല കാർഡുണ്ടാകും അപ്പോൾ അതിനൊക്കെ നമ്മളെന്താ പറയുക സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്കും അതൊരു സന്തോഷമായി മുതിർന്ന ആൾക്കാർക്കും അവരുടെ കല വികസിപ്പിക്കുന്നതിനും അവർക്ക് ഇതിലോട്ടുള്ള ഒരു താത്പര്യം കൂട്ടുന്നതിലും എല്ലാം ഇന്നും ഏറെ സഹായിച്ചിട്ടുണ്ട് പണ്ടു കാലത്തെ കാർഡുകൾ